ഭാഷേനെക്കുറിച്ച് പറയാണെങ്കിൽ ഇന്നത്തെക്കാലത്തിപ്പം പഴയ രീതിയിൽ ആണ് പലരും സംസാരിക്കുന്നത് പിന്നെ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ കോഴിക്കോട്ടുകാർ സംസാരിക്കുന്നത് കുറേ നീട്ടി ബാക്കി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നീട്ടി വളച്ചിട്ടാണവർ പറയുക പിന്നെ കണ്ണൂർ കണ്ണൂർക്കാരാണെങ്കിൽ വേറൊരു ശൈലിയിലാണവർ സംസാരിക്കണത് മലപ്പുറത്തേക്ക് മലപ്പുറം ഭാഷ മലപ്പുറത്തേക്ക് മലയാളം സംസാരിക്കാൻ പലരും പലരീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ ഇപ്പം മുസ്ലിങ്ങളാകട്ടെ ആദ്യത്തെ പോ ആദ്യം അവർ വേറെ രീതിയിലായിരുന്നു മലയാളമൊക്കെ സംസാരിച്ചിരുന്നത് ഇപ്പോൾ കുറേ വിദ്യാഭ്യാസം കുറേ കൂടിയ വിദ്യാഭ്യാസം കുറേ കൂടുതലായതു കൊണ്ടു വന്നതു കൊണ്ട് കുറേയൊക്കെ മെച്ചപ്പെട്ട നല്ല രീതിയിൽ തന്നെ സംസാരിക്കണുണ്ട് അവരൊക്കെ പിന്നെ തൃശൂ തൃശ്ശൂർക്കാർ ഒരു കടിച്ചു പിടിച്ചും കൊണ്ടുള്ള സംസാരണവർക്ക് പെട്ടെന്നു പെട്ടെന്ന് എന്തുട്ടണ് എന്തണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവരെ അവരെ ഭാഷ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല വേഗം കണ്ണൂർ ആ ഭാഗത്തേക്കൊക്കെ പറയുമ്പോൾ കരട് കിണറെന്നൊക്കെ പറയാറ് കിരടെന്നാൽ അതിൻ്റെ ഹസ്ബൻഡ് കൊറേ കാലം അവിടെ ജോലി ചെയ്തിരുന്നു അപ്പോ അവർക്കാ ഭാഷാ നല്ലോണം അറിയാരുന്നു ഇപ്പെന്നാൽ മുൻപത്തെ രീതിയിലല്ല ആദ്യത്തേതിനേക്കാളും കുറേ മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട് കുറേ സംസാര രീതിയൊക്കെ കുറേ നല്ല രീതിയിൽ തന്നെ നല്ല മലയാളം നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ് അധികം ഉള്ളത്